താനം ഫോട്ടോഗ്രാഫർ അല്ലേ ഞങ്ങളുടെ മോ എൻ്റെ മോൾക്കേ ജനുവരി മാസം ഒരു കല്യാണം ആണേ ആ കുട്ടിക്ക് പിന്നെ വീഡിയോയും ഫോട്ടോയും എല്ലാം എടുക്കണം അപ്പം അതിന് ബഡ്ജറ്റ് ഞങ്ങൾക്ക് നോക്കണം ബഡ്ജറ്റ് ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ അകത്ത് വരത്തക്ക രീതിയിൽ നിങ്ങൾ ചെയ്യുമോ

ഫാമിലി ആയിട്ട് ഫാമിലി ആയിട്ട് ഞങ്ങൾ നമുക്ക് ഒരു പത്ത് പത്ത് ഫാമിലി എങ്കിലും വരും ചെറുക്കൻ്റെ വീട്ടുകാർ നമ്മുടെ ഗ്രൂപ്പ് കു കുടുംബവുമായിട്ട് വരുമ്പോൾ പത്ത് ഗ്രൂപ്പ് എങ്കിലും വരും പിന്നെ മുപ്പത് ഫോട്ടോ വരും മുപ്പത് ഫോട്ടോ മുപ്പത് ഫോട്ടോയും വീഡിയോയും വേണം ആ ആ ആ പിന്നെ എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭർത്താവ് മരിച്ചു പോയതാണ് അപ്പം അവരുടെ ഫോട്ടോ സിംഗിൾ ഫോട്ടോ നമ്മുടെ ഫാമിലി ഫോട്ടോയിൽ അറ്റാച്ച് ചെയ്ത് നമുക്ക് തരണം ആ ആ

ആ ക്ലിയർ ഉള്ള ഫോട്ടോ ആ

ആ ആ ആ ആ പിന്നെ പിള്ളേർക്ക് അ പള്ളിയിൽ വെച്ച് നമ്മുടെ അൽത്താരയിൽ കുർബാന ഒക്കെ നടത്തുന്ന സമയത്ത് കുർബാന എടുക്കുന്ന സമയത്ത് താലി കെട്ടുന്ന സമയത്ത് അവർ പെണ്ണും ചെറുക്കനും കാറിൽ നിന്ന് ഇറങ്ങുന്ന നേരം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരം ഇങ്ങനെയൊക്കെ പല പല രീതിയിൽ ഫോട്ടോകൾ എടുക്കേണ്ടത് വരും ആ അത് നമുക്ക് അറിയില്ല എന്നാലും നമ്മുടെ കൂടെ ചേർക്കേണ്ടത് വരുമല്ലോ അവർക്കും കൊടുക്കേണ്ടത് വരും ഫോട്ടോ അവരെയും ചേർക്കേണ്ടത് വരും അവരുടെ കുറേ ഫോട്ടോ നമ്മുടെ ഫോട്ടോസിൽ വേണമല്ലോ എന്നാലേ അത് ഭംഗി ആയിരിക്കുള്ളൂ

ആ ശരി അത് നോക്കാം ചോദിച്ചിട്ട് പറയാം ആ ആ അത് വേണം അത് വേണം ആ ലൈവ് വേണം ആ അയ്യായിരം വേണോ ആ ആ

ആ ആ ആ ആ മതി മതി മതി അങ്ങനെ മതി ആ ഫ്രെയിം ചെയ്യാനൊരു പത്ത് ഫോട്ടോ എങ്കിലും വേണം അപ്പോൾ അവർ അവർക്കും വേണമല്ലോ ചെറുക്കൻ്റെ വീട്ടിലും ഞങ്ങളുടെ വീട്ടിലും കൂടെ ഒരു അഞ്ചഞ്ച് പത്ത് ഫോട്ടോ വേണം അത് ആവശ്യമാണല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞത് പോലെ പള്ളിയിൽ വെച്ച് അൽത്താരയിൽ വെച്ച് ചെറുക്കൻ ഇറങ്ങുന്ന നേരം പെണ്ണ് ഇറങ്ങുന്ന നേരം ഇതൊക്കെ നമുക്ക് ഈ ആൽബത്തിൽ സെൻഡ് ചെയ്യാനുള്ള ഫോട്ടോകളാണ് ആ ആണ് ആണ് ആണ് ആണ് ആണ് ആണ് ആണ് ആണ്

ആ ശരി ശരി ശരി